മലയാള ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള ഭാഷ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആളുകൾ ചെയ്യുന്ന സഹായങ്ങളെന്നു പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ വായനശാല നിർമ്മാണം നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം വായനശാലയുണ്ട് പിന്നെ ഈ സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് അറിവുകളാണ് കുട്ടികളിലും മുതിർന്ന ആൾക്കാരിലും സ്ഥലങ്ങളിലൂടെ എത്തുന്നത് അതുപോലെ മലയാളഭാഷ ഒരിക്കലും നിലയ്ക്കാത്ത ഒന്നായാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത് എക്കാലവും ഈ ലോകത്തു നില നിലനിൽക്കുന്ന ഒന്നാണ് മലയാളഭാഷ അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലും പൊതു ഇടങ്ങളിലും എല്ലാം വായനശാലയുടെ നിർമ്മാണം ഉണർത്തിക്കൊണ്ട് വരുകയാണ് മുതിർന്ന ഓരോ ആൾക്കാരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ജൂൺ പത്തൊൻപത് വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് ഓൺലൈനായും ഓരോ പ്രമുഖരായ ആളുകളെ കൊണ്ട് അതായത് കവിതയും കഥകളുമൊക്കെ കുട്ടികളിൽ എത്തിക്കുന്നുണ്ട് അതിലൂടെ മികച്ച പ്രോത്സാഹനമാണ് ആളുകൾ മലയാളഭാഷയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് മലയാളഭാഷയിൽ നിന്നും ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടെൻറ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്ന ആൾക്കാർക്കായാലും വായനയിലൂടെ എത്തിക്കാൻ ഇന്നത്തെ സമൂഹത്തിന് കഴിയുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു